ഹലോ എന്റെ പേര് മെറീന എന്നാണേ ഞാന് ആലപ്പുഴയിൽ നിന്നാണേ വരുന്നത് എനിക്ക് മു മുടി ഓയി ഓയില് മസ്സാജ് ചെയ്യണം കളറും ചെയ്യണം എത്രയാവും എന്റെ ഷോർട്ട് കട്ട് ആണ് ഇല്ല ഇല്ല ഷോർട്ട് ആണ്

ആ ആ ആ ഒരു ഹെയര് കട്ടും കൂടെ ചെയ്തേക്ക് ഒരു യൂവോ വീയോ ആ ആ അപ്പോയിന്റ്മെൻറ് എടുക്കാന് വേണ്ടിയിട്ടാണേ നാളെ നാളത്തേക്ക് കിട്ടുമോ ആ ആ ആ ആ ആ ഓ വരാം വരാം ആ ഡാന്ഡ്രഫും കൂടെ തല ചെയ്ത് ആ അതിനെത്രയാവും ആണോ ആ എന്നാൽ ആ ആ ആ ഞാന് ഹെയര് കളര് ഹെയര് കളർ വേണ്ട മറ്റേ ഡാന്ഡ്രഫിന്റെയും ഓയില് മസാജും മതി കളയണം യം സ്മൂത്തനിംഗ് ചെയ്യുമോ ആ ഓക്കെ ലെങ്ങ്ത് ആ ലെങ്ങ്ത്ത് അനുസരിച്ചാണോ അല്ലേ മുടിയുടെ ലെങ്ങ്ത്ത് അനുസരിച്ചാണോ ആ ആ ആ ആ പറയാം ചേച്ചി പറയാം ആ ശരി ആ ശരി